ആരോഗ്യമുള്ള മൃഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഒരുവിധം മൃഗങ്ങളാരും ഊർജ്ജസ്വലരായിട്ട് നടക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ഒരു മൃഗത്തിനെ കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് കുറെ നമുക്ക് മനസിലാകുവല്ലോ അതൊക്കെ കുഴപ്പമില്ല ഓടിച്ചാടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്താലത് കഴിക്കുന്നുണ്ട് നമ്മളോട് കുറെയൊക്കെ പ്രതികരിച്ചു വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതൊരു വലിയ കുഴപ്പമില്ലാത്തൊരു മൃഗമാണെന്നുള്ളത് ഇങ്ങനെയുള്ള മൃഗങ്ങളും നമുക്ക് ഒര തിരിച്ചറിവ് തന്നെയാണ് നമ്മുടെ മാനുഷിക ബുദ്ധികൊണ്ടൊക്കെ തന്നെ അറിയാം അതിന് വേറൊരാളുടെ ഉപദേശം അങ്ങനെ തേടിയതായിട്ട് തോന്നുന്നില്ല പിന്നെ ആവശ്യം വന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ ഒക്കെ നമുക്ക് ചോദിക്കാവല്ലോ ഇങ്ങനെയുള്ള ഇതിനെ എങ്ങനെയുണ്ട് ഇത് നല്ലതാണോ ഇതിനെ വളർത്തി കഴിഞ്ഞാലതുകൊണ്ട് ഗുണം കിട്ടുവോ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് തിരക്കാം പിന്നെ മെയിനായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും ഇതുങ്ങളെ നമ്മുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാലുള്ള നമ്മളുടെ ആ ഒരു സമീപനം കൊണ്ട് തന്നെ അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ആണെങ്കിലും അതുങ്ങളെ പുറത്തോട്ടയക്കുമ്പോഴ് പുറത്തോട്ട് വിടുമ്പോഴും ഒക്കെ ആണെങ്കിലും ഉള്ള അതുങ്ങളുടെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറെക്കുറെ ഇതുങ്ങള് നല്ല ഊർജ്ജസ്വലരായിട്ടുള്ളതാണ് എന്നുള്ളത് പിന്നെ അതുപോലൊന്നെ നമുക്കറിയാം ആടൊക്കെയാണെങ്കില് അങ്ങനെ ഉള്ള മൃഗങ്ങളൊക്കെയാകുമ്പഴത്തേക്ക് പെട്ടെന്നവരുടെ മാറ്റം നമുക്ക് മനസ്സിലാക്കാ പറ്റും നമ്മുടെ മാനുഷിക ദൃഷ്ടി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ തണുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പഴത്തേക്ക് പെട്ടെന്ന് അതുങ്ങള് ഡിം ആകുന്ന ഒരു ഇത് നമുക്കറിയാം പശുവിനെ സംബന്ധിച്ച് അത്രയും ഇല്ല പക്ഷേ ഇതുങ്ങളെ നമുക്ക് ആടിനെയൊക്കെയാണെൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന മൃഗങ്ങളെ കുറിച്ചെ നമുക്ക് അങ്ങനെ അറിയത്തുള്ളൂ അല്ലാതെയുള്ള മൃഗങ്ങളെയൊക്കെയാണെൽ നമുക്ക് അവരുടെ ഡോക്ടർമാരുടെയോ വെറ്റിനറി ഫീൽഡിലുള്ളവരോടൊക്കെ അതിൻ്റെ ഇതായിട്ട് തിരക്കേണ്ടി വരുവായിരിക്കും പിന്നേ ഒരു പശുവിനെയാണേലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതിന് ദഹനക്കേടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് വരുമ്പോൾ നമുക്ക് അറിയാം പിന്നെ കോഴിയൊക്കെയാണേലും എന്തെങ്കിലും വസന്ത വന്നു കഴിഞ്ഞാലത് തൂങ്ങിപ്പിടിച്ചങ്ങ് നിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ ഉടനെ തന്നെ മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് അതിനെ ശുശ്രൂഷിക്കുകയും പതിവ് അങ്ങനെ നമുക്ക് മൃഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറെകുറെ നമ്മുടെ ചുറ്റുപാടുകൊണ്ട് തന്നെ നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നതേയുള്ളന്ന് തോന്നുന്നു പിന്നെ അതുപോലുള്ള ബുദ്ധിമുട്ടുകള് നമ്മള് കടന്നുപോയിട്ടില്ല അങ്ങനൊരു ഇതുണ്ട് അങ്ങനെയൊക്കെ ആണല്ലോ അല്ലാതെ പ്രത്യേകിച്ചും മൃഗങ്ങളെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ അത്പോലെയുള്ള ഇത് നമുക്കില്ല നമ്മള് ഇത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിലുള്ള മൃഗങ്ങളെ കുറിച്ചല്ലെ നമ്മള് അറിയുന്നുള്ളൂ പിന്നെ അല്ലെങ്കിൽ അതുപോലുള്ള വൈൽഡ് ആനിമൽസിലോ അതുപോലെ ഉള്ള ഇതൊക്കെയാണെൽ അതുപോലുള്ള വിദഗ്ദ്ധരുടെ അഭിപ്രായം നമുക്ക് വേണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അതൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ടും നമ്മളത്രയൊക്കെ അങ്ങോട്ട് പോയിട്ടുള്ളൂ പിന്നെ മുയലിനെയൊക്കെയാണേലും നമുക്കറിയാം മുയലിനെ പെട്ടെന്ന് അതിൻ്റെ രീതികള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും